ചരിത്രം എന്നും ആസ്വദിച്ച് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് കുട്ടിക്കാലത്ത് ചരിത്രം വളരെ ഇഷ്ടമായിരുന്നു ഒരുപാട് ചരിത്രത്തിലെ കാര്യങ്ങൾ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ആയിരത്തി എഴുനൂറ്റി നാൽപ്പത്തൊന്നിലെ കൊളച്ചിൽ യുദ്ധം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഒരു ഹിന്ദു രാജാവ് ഒരു പുറത്തുള്ള ഒരു പ്രാദേശിക ശക്തി ആദ്യമായിട്ട് തോൽപ്പിച്ചത് ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ചു അത് ഭയങ്കര ഒരു എപ്പോഴും ഒരു നമ്മൾ എല്ലാം വളരെ വണ്ടറോടെ ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും പടക്കോപ്പുകളും തോക്കുകളുമായിട്ട് വന്ന ഒരു ഡച്ച് സൈന്യത്തെ തോൽപ്പിക്കാൻ പറ്റിയതെന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മ എന്തെല്ലാം ആയുധധാരികളാണ് നമുക്ക് ചുറ്റും ഉള്ളത് എന്നല്ല നമ്മുടെ കഴിവിൽ നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം ആ യുദ്ധത്തിൽ ജയിച്ചതോടെ നമുക്ക് കാണിച്ച് തരുവാണ് കാരണം അദ്ദേഹം അത്രയും ആത്മവിശ്വാസത്തോടെ അവരെ നേരിട്ടതുകൊണ്ട് കൊണ്ടായിരിക്കണമല്ലോ അവരെ കുളച്ചിൽ യുദ്ധത്തിൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയത് അതിലെ ഡി ലനോയ് എന്ന ഡച്ച് സൈനികൻ അവസാനം മാർത്താണ്ഡവർമ്മയുടെ കാൽക്കൽ വീണ് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ പടത്തലവനായിട്ട് നിയമിക്കപ്പെട്ടു കാരണം അത്രയും വലിയ ഒരു ആയുധധാരിയായ അദ്ദേഹം ഇത്രയും യുദ്ധങ്ങൾ ചെയ്ത അദ്ദേഹം ഒരു ഹിന്ദു രാജാവിൻ്റെ അതും തിരുവിതാംകൂർ പോലെ ഒരു ചെറിയ രാജ്യത്തിന് മുമ്പിൽ വന്ന് കീഴടങ്ങണമെങ്കിൽ അങ്ങനെ കീഴടങ്ങി കൊടുക്കണമെങ്കിൽ അദ്ദേഹം അത്രയും വലിയ ഒരു നല്ല മഹത്തായ വ്യക്തി തന്നെയായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു